എൻ്റെ പേര് ടോസ്മി എന്നാണ് ഞാൻ ആലപ്പുഴയിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം നാട് അവിടെയാണ് ഞാനിപ്പം സ്ഥലം മാറി ഇപ്പോൾ കോഴിക്കോട് താമസിക്കുകയാണ് അപ്പം എൻ്റെ പാൻ കാർഡിലെ അഡ്രസ്സെല്ലാം കിടക്കുന്നത് ആലപ്പുഴയിലും കാര്യങ്ങളൊക്കെയാണ് ആലപ്പുഴ അഡ്രസ്സാണ് കിടക്കുന്നത് അപ്പം എനിക്ക് അതിനിപ്പം കോഴിക്കോട്ടേക്ക് മാറ്റണം എനി സ്ഥിരം കോഴിക്കോട് തന്നെയായിരിക്കും ആലപ്പുഴയിലോട്ടില്ല അപ്പം എനിക്ക് അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടിവരിക പേപ്പർസ് എഴുതി തരുന്നതോ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് വരയിപ്പിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണേൽപ്പിക്കേണ്ടത് അതിൻ്റെ കാര്യങ്ങളൊക്കെയൊന്ന് ഡീറ്റെലായിട്ടൊന്ന് പറഞ്ഞുതരാമോ